ഹായ് എന്തുണ്ട് വിശേഷം നിങ്ങൾക്കു സുഖമാണോ എനിക്കിവിടെ സുഖമാണ് ഞാൻ വിരമിക്കാൻ പദ്ധതി ഇടുകയാണ് വിരമിക്കലിനു ശേഷം വേണം ലോകമെമ്പാടും പോയി യാത്രകൾ ചെയ്യുവാൻ ആയിട്ട് പക്ഷേ അതിനു വേണ്ടിയിട്ടെനിക്ക് പാസ്പോർട്ടില്ല അപ്പോൾ യാത്രകളാരംഭിക്കുന്നതിനു മുൻപു പാസ്പോർട്ട് പുതുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പാസ്പോർട്ട് പുതുക്കുന്നതിനു നിങ്ങളുടെ പിന്തുണ എനിക്ക് ആവശ്യമാണ്